ഹലോ ശീ ടാക്സി അല്ലെ സാർ എനിക്കാണെങ്കിൽ പതിമൂന്നാം തിയതിയിലേക്ക് ഒരു പതിനൊന്നര ആകുമ്പോൾ ഒരു വാൻ വിട്ടുതരാമോ എനിക്ക് ഫാമിലി ആയിട്ടൊന്നു പുറത്ത് പോകാനായിരുന്നു നമുക്ക് പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിവരെ ആയിരിക്കും അത് എനിക്ക് കൊല്ലം ബീച്ചിൽ പോകണം അത് കഴിഞ്ഞ് എൻ്റെയൊരു റിലേറ്റീവിൻ്റെ വീട്ടിലും പോവണം അപ്പം ഒരു വാൻ വിട്ട് വ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പം തിരികെ പോകാം ഇതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രൈവറ് നമ്മളോട് സഹകരിക്കുമോ നമ്മൾക്ക് എവിടെങ്കിലും പോവുമ്പോൾ അയാൾ പരാതി വല്ലതും പറയോ കൃത്യസമയത്ത് ഞങ്ങളെ വന്ന് ഒരു പതിനൊന്നര ആവുമ്പോൾ തന്നെ പിക്ക് ചെയ്യണം വൈകുന്നേരത്തെ തിരികെ പോകാൻ ഒക്കത്തൊള്ളൂ ഇതിൻ്റെ പേയ്മെൻറ്റ് ഒക്കെ എത്രയാണ് എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താന്ന് ഞങ്ങളെ അറിയിച്ചാൽ കൊള്ളാമായിരുന്നു ഡേറ്റ് സാറെ ഒന്നുംകൂടെ നോട്ട് ചെയ്തേക്കണേ പതിമൂന്നാം തിയതി രാവിലെ പതിനൊന്നര തൊട്ട് ഈവനിങ്ങിൽ ഫൈവ് ഓ ക്ലോക്ക് ആണേ ഞങ്ങളുടെ സ്ഥലോന്ന് വെച്ചാൽ ഇവിടെ കൊല്ലത്തിൽ കൊല്ലം ശിങ്കാരപള്ളി കല്ലട ശിങ്കാരപള്ളി അത് സർ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ പതിമൂന്നാം തീയതി പതിനൊന്നരക്ക് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ കൊല്ലത്തിൽ കൊടുവിള ശിങ്കാരപള്ളി താങ്ക് യൂ സാർ മറക്കരുത് താങ്ക് യൂ